പാലക്കാട് ജില്ലയിലെ ആരോഗ്യ സംരക്ഷണത്തിന് നല്ല ചികിത്സയാണ് എല്ലാവടെയും കൊടുക്കുന്നത് അപ്പോൾ മെഡിക്കൽ കോളേജായാലും ഹോമിയോ ആയുർവേദ അലോപ്പതിയാണെങ്കിലും എല്ലാവടെയും നല്ലൊരു ചികിൽസ തന്നേയാണ് കൊടുക്കുന്നത് ഇപ്പോൾ പുതിയ പുതിയ ഹോസ്പിറ്റൽ പാലക്കാട് മെഡിക്കൽ കോളേജ് പൂർത്തിയാവാനിരിക്കെയാണ് ഏകദേശം എല്ലാം ശരിയായി വരുന്നുണ്ട് അവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഇതുപോലെ തന്നെ പാലക്കാട് കുറെ ഹോസ്പിറ്റലുണ്ട് അഹല്യ ഹോസ്പിറ്റൽ രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ അങ്ങനെ കുറെ ഹോസ്പിറ്റലുണ്ട് അവിടെ എല്ലാവടെയും മികച്ച സംരക്ഷണം തന്നെയാണ് അവര് തരുന്നത് കാരണം ഇത്രയും ഫെസിലിറ്റി ഉണ്ട് നമുക്ക് ഇന്നൊരു രോഗത്തിന് വേണ്ടി പുറത്ത് പോയി ചികിൽസിക്കണ്ട ഒരാവശ്യം വരുന്നില്ല കാരണം നമ്മുടെ ഈ ജില്ലയിൽ തന്നെ എല്ലാത്തിനും കാർഡിയോളജിസ്റ്റിനാണെങ്കിലും എല്ലാത്തിനും നമുക്കിവടെ ഇവിടെ തന്നെ സൗകര്യം തരുന്നുണ്ട് ഇവിടെത്തന്നെ ചികിത്സ ചികിത്സ ചെയ്യാൻ ചികിത്സ ചെയ്യാൻ പറ്റുന്നതാണ്